ആ ചേച്ചി ആ ഞാന് മറ്റേ ഇൽ അവിടെ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഇലക്ട്രിക്കലിൻ്റെ കംപ്ലൈന്റ് ഉണ്ട് അത് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്താണ് സംഭവം

മറ്റേ അത് മെയിനിൽ നിന്നല്ലെ എടുത്തിരിക്കുന്നത് ആ ഞാൻ അവിടെ വൈകുന്നേരം എ സി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പം വരുന്നുണ്ടോ മോട്ടറിന് മാത്രേ കംപ്ലൈന്റ് ഉള്ളൂ അപ്പം അവിടിത്ത ലൈനിൻ്റെ അതിന് എന്തെങ്കിലും പ്രശ്നം ആയിരിക്കും അവിടുത്തെ മെയിൻ മെയിൻ സ്വിച്ച് എവിടെ ആണ് അത് മറ്റേ നമ്മടെ എം എൽ സി വി എവിടെയാണ് ഇരിക്കുന്നത് എം എൽ സി വി ഉള്ളിൽ തന്നെ ആണോ ആ അതില് ഏതെങ്കിലും മറ്റേ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടോ ആ ലോഡ് കൂടുതല് വലിക്കുമ്പോൾ അല്ലേ അത് സാധാരണ എപ്പോഴാണ് മോട്ടറ് ഇടാറ് അപ്പോ റോ വോൾട്ടേജിൻ്റെ കംപ്ലയിൻറ്റ് വല്ലതും ആണ് വൈകുന്നേരം ഒക്കെ ആണ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവരും ഉപയോഗിക്കുന്ന നേരം കൊണ്ട് വോൾട്ടേജ് ഇതാകും അറിയാം പക്ഷെ ഇത് ആ അപ്പോൾ മോട്ടറിൻ്റെ ഇപ്പോൾ ലോഡ് വലിക്കുന്നതിൻ്റെ പ്രശ്നം ആയിരിക്കും അപ്പോൾ ചിലപ്പം അത് ഒന്ന് ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക സിംഗിൾ ഫേസ് ടച്ചിംങ്ങാണ് അത് അതാതാ വെച്ച് ഇപ്പം സിംഗിൾ ഫേസ് എന്ന് കൊടുത്തിട്ട് ഉണ്ടാവും ഇപ്പ പുതിയതായിട്ട് കൊടുത്തത് അല്ലേ ആ അപ്പം അത് മെയിനില് കൊടുക്കാണ്ട് സിംഗിൾ ഫേസ് എന്ന് കൊടുത്തതുകൊണ്ട് ആയിരിക്കും ചിലപ്പം അത് അങ്ങനെ കട്ട് ആയി പോകുന്നത് ഞാൻ നോക്കട്ടെ ഒര് മിനിറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ചിൽ നിന്നല്ലെ വലിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ അതാ ചേച്ചി സിംഗിൾ ഫേസിന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആണ് സംഭവം ആ അതിന് ഇത് വയറിൻ്റെ കട്ടി ഈ തിക്ക്നെസ്സും കുറവാണ് ഇതില് ഈ വയർ അല്ല ഉപയോഗിക്കണ്ടത് ആ ഇത് സാധാ വയറ് ഇട്ട് കൊടുത്തതാണ് ഓ എൻ്റെ മോട്ടറ് സിംഗിൾ ഫേസ് മോട്ടറ് ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ സിംഗിൾ ഫേസാണെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തത് ആയിരിക്കും ഇത് ഇപ്പോൾ ടു ത്രീ ഫേസിൻ്റെ മോട്ടർ അല്ലേ പവറ് കൂടുതൽ ആയിരിക്കും അപ്പം അതുകൊണ്ട് ആ പൂജ്യം കട്ട് ആവുന്ന് വിചാരിക്കുണു അപ്പോൾ നമുക്ക് ഈ വയറിംഗ് ഇതിൻ്റെ മാത്രം വയറിംഗ് ഒന്ന് റീവർക്ക് ചെയ്യേണ്ടി വരും ആ ഞാൻ അപ്പോൾ ഏട്ടൻ എപ്പോഴാണ് വരിക ഏട്ടനോട് സംസാരിച്ചിട്ട് ചെയ്താൽ മതിയോ എന്താ വേണ്ടത് എനി ആ ഞാൻ ആളെ വിളിച്ചിട്ട് ചോദിച്ച് നോക്കട്ടെ ഇപ്പം എന്താ വയറിൻ്റെ കാര്യങ്ങള് എന്താണ് ചെയ്യണ്ടത് എവിടുന്നാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒക്കെ നമ്മൾ എടുത്തിട്ട് വരണോ ആ ആളോട് വേറെ എവിടെയെങ്കിലും ഒര് ഡേറ്റ് തരുമൊ ചോദിച്ച് നോക്കട്ടെ നാളെ ചോദിച്ചിട്ട് ഞാൻ ചേച്ചീയുടെ അടുത്ത് ഇന്ന് വൈകുന്നേരത്തിന് ഉളളില് അല്ലെങ്കിൽ ആ ഇന്ന് ആ ഉച്ച ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അത് റെഡി ആക്കി താരാം കേട്ടോ ആ റെഡി ആക്കാം റെഡി ആക്കാം ഞാൻ എന്നാ വാ ഇപ്പത്തന്നെ വിളിച്ച് നോക്കട്ടെ ആളെ ഒന്ന് വിളിച്ച് നോക്കീട്ട് എന്താ ചെയ്യണ്ടേ ചോദിച്ച് നോക്കട്ടെ എന്തായാലും ഇത് മാറ്റേണ്ടി വരും കാരണം വയറ് ഇനിയും ഇത് വലിച്ച് കഴിഞ്ഞാൽ ഇത് വയറ് കട്ട് ആയി കട്ട് ആയി പോയി കൊണ്ട് ഇരിക്കും അതുകൊണ്ട് ആണ് അത് ട്രിപ്പ് ആകുന്നത്